മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് ഇന്ത്യയിൽ കേരളം ലക്ഷദ്വീപ് അതുപോലെതന്നെ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുളള മാഹി എന്നിവിടങ്ങളിലാണ് പൊതുവായി മലയാളം സംസാരിക്കുന്ന ആളുകളുള്ളത് അതുപോലെതന്നെ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ ധാരാളമായി താമസിച്ച് വരുന്നുണ്ട് മലയാളമെന്ന് പറയുന്നത് ഒരു ദ്രാവിഡ ഭാഷയാണ് എന്നാണ് പറയപ്പെടുന്നത് പൊതുവെ മലയാളം സംസാരിക്കുന്ന ആളുകളെ മലയാളികളാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെതന്നെ കേരളീയരെന്നും പറയുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് ഏകദേശം മൂന്നര കോടി ആളുകൾ മലയാളം സംസാരിക്കുന്നവരായിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വെരെ നാമൊന്ന് സഞ്ചരിച്ചാൽ ഈ മലയാളികളുടെ ഭാഷ രീതികളിൽ പല തരത്തിലുള്ള വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം എന്തരെടാ എന്തരെടാ അപ്പി എന്ന രൂപത്തിലാണ് അവര് സംസാരിക്കുന്നത് തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്ത് ചെന്നാൽ അത് വിത്യസ്തവമായ രീതിയിലായിരിക്കും സംസാരിക്കുക അതുപോലെതന്നെ തൃശ്ശൂർ ഭാഗങ്ങളിൽ എന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ എന്തൂട്ടെടാ ക്ടാവേ ആ രൂപത്തിലാണ് നമ്മുടെ സംസാര മലയാളികൾടെ ആണെങ്കിലും സംസാര രീതി വ്യത്യസ്തമാണ് കാസർഗോഡാണെങ്കിൽ വേറൊര് രീതിയിലാണ് സംസാരിക്കുന്നത് കോഴിക്കോട് വന്ന് കഴിഞ്ഞാൽ ആ സംസാര രീതി വീണ്ടും മാറ്റം വരും അതുപോലെ തന്നെ കേരളത്തിൽ ആദിവാസി മേഖലകളിൽ പൊതുവെ മലയാളമാണ് സംസാരിക്കുന്നത് എങ്കിലും അവരുടെ ഉച്ചാരണ ശൈലിക്കും മറ്റും നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എറ്റവും നല്ല രീതിയിലുള്ള ശുദ്ധമായ മലയാളം സംസാരിക്കുന്ന ജില്ലയേത് എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും പല അഭിപ്രായമാണ് എന്നിരുന്നാലും പൊതുവെ കോട്ടയം ജില്ലയിൽപ്പെട്ട ആളുകളാണ് നല്ല രീതിയിലുള്ള മലയാളം സംസാരിക്കുന്നു എന്നാണ് വെപ്പ് അതുപോലെ തന്നെ ഏറ്റവും മോശമായ രീതിയിലുള്ള മലയാളം മുൻകാലങ്ങളിൽ സംസാരിച്ച് പോന്നിരുന്നത് മലപ്പുറം ജില്ലയിൽപ്പെട്ട ആളുകളാണ് എന്നാലിപ്പോൾ വിദ്യാഭ്യാസ പരമായി ട്ടുള്ള പുരോഗതി മലപ്പുറം ജില്ലയിലും കൂടുതലായി വന്നിട്ടുള്ളത് കൊണ്ട്

മലപ്പുറം ജില്ലക്കാരുടെ സംസാര രീതീയിലുമൊക്കെ കാലക്രമേണ മാറ്റങ്ങൾ വന്ന് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾക്ക് പല രീതിയിലുള്ള ഒരോ സാധനത്തിനാണെങ്കിലും ഈ കേരളത്തിനകത്ത് ഉള്ള പതിനാല് ജില്ലകളിലും വ്യത്യസ്തമായ പേരുകളാണ് പറയപ്പെടുന്നത് ഉദാഹരണത്തിന് നമ്മുടെ കപ്പ എന്ന് പറയുന്ന മരച്ചീനി എന്നുള്ള ആ ക് കപ്പയ്ക്ക് പല സ്ഥലങ്ങളിലും കൊള്ളി എന്നും മരച്ചീനി എന്നും മറ്റും പറയാറുണ്ട് ഇത്രയൊക്കെയാണ് പൊതുവെ മലയാളിയെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത്